ഞാൻ ഓൺലൈനിൽ നിന്നും ഒരു ഗെയിമിംഗ് കൺസോള് ബുക്ക് ചെയ്തിരുന്നു വളരെ നല്ല പ്രോഡക്റ്റാണ് അതുപോലെതന്നെ അവരുടെ സർവീസിനെപ്പറ്റി പറയാതിരിക്കാനും സാധിക്കില്ല വളരെ നല്ല സർവീസാണ് അവരെനിക്ക് നൽകിയത് ഈ ഗെയിമിംഗ് പ്രൊഡക്റ്റ് വളരെ നല്ല ഒരു പ്രൊഡക്റ്റാണ് അതുപോലെ തന്നെ അതിൻ്റെ സവിശേഷതകൾ വളരെ അധികമാണ് അതുപോലെ തന്നെ എനിക്ക് ഗെയിം കളിക്കുമ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് വളരെ നല്ലൊരു പ്രോഡക്റ്റായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ അതിൽ നല്ല രീതിയിൽ തന്നെ എനിക്ക് ഗെയിം കളിക്കുവാനും സാധിക്കുന്നുണ്ട് ഓക്കെ താങ്ക് യൂ